സ്കൂളുകളിൽനിന്ന് ഓണ്ലൈന് ഇതുമാ യിട്ട് ബന്ധപ്പെട്ട് പരിശീലനം കുട്ടികളുടെ ജീവിതത്തില് നല്ല രീതിയിലത് പ്രയോജനവും ഉണ്ടായിട്ടുണ്ട് അത് രണ്ട് എതിര് ഫലവുമുണ്ടായിട്ടുണ്ട് കാരണം കോവിഡ് സമയത്ത് ഓണ്ലൈന് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കുട്ടികള്ക്ക് മൊബൈല് അവരത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അത് നല്ല രീതിയിലതുപയോഗിച്ചവരുമുണ്ട് അതുപോലത്തെ തെറ്റായ രീതിയിലുപയോഗിച്ചവരുമുണ്ട് അതിന്റെ തിക്തഫലവും നമ്മളിന്ന് അനുഭവിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസമേഖല എടുത്തുകഴിഞ്ഞാൽ ഓണ്ലൈന് വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കേറ്റവും നല്ലതാണ് നമ്മുടെ കുട്ടികള്ക്കൊക്കെ നല്ലതാണ് പക്ഷെ അതിന് രണ്ട് വശങ്ങളുണ്ട് രണ്ട് ഗുണവും ഉണ്ട് ദോഷവുമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു മാറ്റത്തിന്റെ പാതയിലാണിപ്പോള് മുന്നോട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ വിജഷന്മാർ പണ്ട് നിര്ദേശിച്ച അതേ വിദ്യാഭ്യാസത്തില് തന്നെയാണ് നമ്മൾ പോകുന്നത് എങ്കിലും അതിന്റെ തിക്തഫലം നമ്മളനുഭവിക്കുകയാണ് നമ്മുടെ സിലബസ് തെരുതെരെയുള്ള സിലബസ് മാറ്റവും ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഭയ ബാധിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ ഓണ്ലൈന് വിദ്യാഭ്യാസമെന്ന പേരുപറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുട്ടികള് കാട്ടിക്കൂട്ടുന്ന വികൃതികൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഓണ്ലൈന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഒരു കുറച്ച് നാളുകള്ക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഒരു മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട മൊബൈല് കൊടുത്തു പഠിക്കാൻ കൊടുത്തതാണ് അത്തുകഴിഞ്ഞ് കൊടുത്ത് അവനെ അത് വീടിന്റെ രണ്ടാം നിലയിലിരുന്നാണ് ഇത് ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പം വീട്ടിലെ മാതാപിതാക്കൾ സംഭവിച്ചുള്ളത് ഇരുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസറ് രാവിലെ വന്ന് അവിടെ നില്ക്കുമ്പോഴാണ് ഇതിന്റെ വിവരം അവനത് ആ ഓണ്ലൈന് വിദ്യാഭ്യാസത്തിന് കൊടുത്തത് അവനത് തെറ്റായ രീതിയിലതുപയോഗിച്ചു അത് മെസ്സേജ് പല തെറ്റായ മെസ്സേജുകളും ആ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തതിന്റെ ഫലമായി ആ ഒരു ഒരു ഡിപ്പാര്ട്ട്മെന്റ് പോലീസ് വന്നു അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെ ചില നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാല് അതനുസരിച്ച് നമുക്ക് വിദ്യാഭ്യാസത്തില് പുരോഗതിയും ഉണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തില് വരിക്കുവാനായിട്ട് നമുക്ക് പഴയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമല്ലല്ലോ ഇപ്പോഴുള്ളത് നമ്മുടെ കുട്ടികള്ക്കെല്ലാം കാര്യങ്ങളും അറിയാം പഴയ കൊണ്ട് പണ്ടു നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളല്ല അവരിന്ന് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പം ആ രീതിയിലവര്ക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവര്ക്കും പ്രയോജനമുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും ഒക്കെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ നമുക്കറിയാം ഇന്ന് കൊച്ചുകുട്ടികൾ പോലും ഇന്ന് വളരെ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് മുതിര്ന്നവര്ക്ക് പോലും അത്രയും പോലും അവര്ക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ കുട്ടികള്ക്കറിയാം അപ്പം അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് അവരിന്ന് ജീവിക്കുന്നത് അപ്പം ഈ ഓണ്ലൈന് വിദ്യാഭ്യാസം വഴി അവര്ക്കേത് മേഖലകളിലും സമസ്തമേഖലകളിലും ഇന്ന് കടന്നുകയറാനായിട്ട് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവര്ക്ക് പഠിക്കുവാനായിട്ട് ഏത് രാജ്യത്ത് ചെന്ന് പഠിക്കാനുമായിട്ട് പറ്റും ഏത് സംസ്ഥാനത്ത് ചെന്ന് പഠിക്കാനായിട്ട് പറ്റും അതേ രീതിയിലുള്ള വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ ഓണ്ലൈന് ഇതുവഴിയാണ് അവര്ക്ക് കൈവശമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒരു നിയമത്തിലൂടെ കുറേയൊക്കെ നിയന്ത്രിക്കുകയാണെങ്കില് കുറച്ച് നല്ലതായിരിക്കും